ആ എനിക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ വേണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ വിളിച്ചത് ആ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനാണ് എടുത്തു വച്ചേക്കോ അ അപ്പം ഞാൻ എന്തായിരുന്നാലും സാധനങ്ങളുടെ പേര് പറയാം പേന എടുത്തോളൂ ആ ഒരു ജോമട്രി ബോക്സ് ആ എങ്ങനാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഏതായിരിക്കും ആ അപ്പം അതെടുത്തോളൂ പിന്നെ എനിക്ക് പന്ത്രണ്ടെണ്ണൂള്ള കളർ പെൻസിലിൻ്റെ ഒരു സെറ്റ് വേണം ആ വലുത് ആ എത്രയാവും ഇത്

ആ ആ

ആ ആ ആ ആ എങ്കിൽ വളരെ ഉപകാരമായിരുന്നു